ഞങ്ങളുടെ അവിടെ തൊട്ടടുത്ത് ബാണാപുരം ക്ഷേത്രമെന്നറിയണ വാണിയമ്പലം പാറയെന്നു അറിയപ്പെടുന്നൊരു ഒരു പാറയുണ്ട് അത് മതപരമായിട്ടും വിനോദസഞ്ചാരികളും വരുന്നതാണ് കാരണമെന്താണെന്നു വെച്ചാൽ പ്രത്യേകിച്ച് കർക്കിടക മാസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മലയാള മാസത്തിലെന്തെങ്കിലും ഒരു ആചാരപരമായിട്ടുള്ള എന്തെങ്കിലും മാസങ്ങളൊ കാര്യ വന്നാൽ അവിടെ നിന്ന് രാവിലെ ആ ഒരു

ഓ രാവിലെ മുതലങ്ങനെ ആ രൂപത്തിലാളുകൾ വന്നിട്ടും തൊഴുതു പ്രാർത്ഥിച്ചു പോണുണ്ടൊരു ആ ഒരു സ്ഥലമാണ് ബാണാപുരം ക്ഷേത്രം ക്ഷേത്രം പിന്നെ നമുക്ക് വൈകുന്നേരം ആളുകൾ അതൊരു കുന്ന് സ്ഥലത്താണ് ആ ഒരു അരികിൽ പാറെന്റെ മുകളിൽ ആണ് ആ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യണ് അപ്പം അവിടെ വന്നങ്ങാണ്ട് നമ്മളൊരു ഒരു വിനോദസഞ്ചാരികൾക്ക് പങ്കെടുക്കാനും പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ആളുകൾ വന്ന് ഒരുപാടാളുകൾ വന്നങ്ങാണ്ട് കണ്ടു പോകുന്നൊരു സ്ഥലമാണ് പിന്നേ അപ്പം അതു കൊണ്ട് നമുക്ക് കാണാനൊക്കെപ്പറ്റും പിന്നേ അപ്പോൾ ആളുകൾ വന്നു ഫോട്ടോ എടുക്കാനും അതുപോലെ ഒരു ഹൈറ്റുള്ളതുകൊണ്ടു തന്നെ നല്ല യാത്രയും അതിലെ സ ട്രെയിനടുത്തു കൂടി പോകണതു കാണാം കാറ്റുണ്ടാകും പിന്നെ നല്ലൊരു ഒരു ഒരു നല്ല തണുപ്പുള്ള കാറ്റുമാണ് ആളുകൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളും ആ ഒരു പച്ചപ്പും മലനിരകളൊക്കെ കാണാൻ പറ്റുന്നൊരു ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ തേക്ക് ഭാഗങ്ങളിൽ കനോലീ പ്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് വർഷങ്ങൾ പഴക്കമുള്ള തേക്കുകൾ നമ്മൾ പഠിപ്പിക്കണ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാനും ഇത്ര സെൻറ്റീമീറ്റർ നീളം അതുപോലെ തന്നെ ഇത്രകാലപ്പഴക്കമുള്ള തേക്ക് ഒരുപാട് പ്രദേശത്തു നിന്നാളുകൾ അവിടെ വന്നിട്ട് കണ്ടു പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് ആ തേക്കിൻ്റെയൊക്കെ പഴക്കം പഴമ അവിടുത്തെ ആ പഴമീതും അതു പോലെ തന്നെ ആ ഒരു തേക്കിൻ മ്യൂസിയത്തിലുള്ള കാര്യങ്ങളും പഴയ ആളുകളും ഇന്നും അത് അതിന്റെ ആ ഭംഗി ചോരാതവർ നിലനിർത്തിക്കൊണ്ടോണ്ട് കുറേ ആളുകൾ ഇന്നത്തെ തലമുറക്കെന്നു പറഞ്ഞാൽ പഴയതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒട്ടും ചോരാതെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഒരു ഒരു എല്ലാ കാര്യങ്ങളും പഴമയുടെ അതു ചോർന്നു പോകാതെ അതൊപ്പി എടുത്ത് അതേ രൂപത്തിൽ ഇന്നത്തെ തലമുറക്ക് കാണിച്ചു കൊടുക്കുക രൂപത്തിൽ നമുക്ക് തേക്കി മ്യൂസിയത്തിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് പിന്നെ മമ്പുറം ഭാഗമൊക്കെയാണുള്ളത് അവിടെയൊക്കെ ഒരുപാട് നമ്മുടെ പണ്ഡിതന്മാരെ ആ ഒരുരു നല്ല പ്രത്യേകതയുള്ള സ്ഥലമാവോണ്ടു തന്നെ ഒരുപാട് ആളുകളിൽ നിന്നും അവിടെ പൊയ്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരുപാട് പ്രാവശ്യം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പോയിട്ടുള്ളതാണ് കാരണം നമുക്കൊരുപാട് ഗുണങ്ങളും നമുക്ക് ശെൻ ഒരു പ്രാവശ്യം ചെന്നുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണിത് മമ്പുറത്തൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്കിതു തന്നെ നമ്മളവിടെ ഒരു ഒരു പ്രത്യേകതയെ നമുക്കവിടുന്നു പോന്നു കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള അനുഭവങ്ങളാണവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഒരു പ എന്തെങ്കിലും നമ്മളെന്തൊരു എന്ത് ഒരു നമ്മുടെ മനസ്സിലുള്ള എന്താഗ്രഹങ്ങൾക്കായാലും നമ്മളൊരു ഒരു ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ ഓരോ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പല രീതിയിലും നമുക്കവിടുന്ന് പോയിട്ട് അതിൻറ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പോകാണെങ്കിൽ വീണ്ടും നമുക്കവിടെയൊക്കെ സന്ദർശിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്